ഞങ്ങളുടെ നാട്ടിലെ ആരാധനാലയത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം അതായത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം

താലപ്പൊലി മഹോത്സവം ഞങ്ങൾ കൊണ്ടാടാറുണ്ട് അതിന് അതിൽ ഒരു പ്രത്യേകം ഒരു വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അവിടെ അവിടുത്തെ സംഗീതാർച്ചന അവിടുത്തെ സംഗീതാർച്ചന കേൾക്കുവാനും കാണുവാനും ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലത്ത് നിന്നുള്ള ആളുകൾ എത്തിച്ചേരാറുണ്ട് വളരെ പ്രഗൽഭരായ ആളുകൾ വന്നിട്ടാണ് സംഗീതാർച്ചന നടത്താറുള്ളത് കൊച്ചുകുട്ടികൾ മുതൽ ഒരു പ്രായമുള്ള അമ്മമാർ വരെ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ വരെ അതിൽ പങ്കെടുക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിലെ വളരെയധികം ഒരു ഒരു പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഒരു പരിപാടിയാണ് ഞങ്ങടെ അമ്പലത്തിലെ ഉത്സവവും അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഗീതാർച്ചനയും എൻ്റെ ജേഷ്ഠൻ അദ്ദേഹം വളരെ നല്ലൊരു ഗായകനാണ് ഒരുപാട് വർഷങ്ങളായി ഞങ്ങളുടെ അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീത അർച്ചന ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു മ്യൂസിക്ക്യൽ അക്കാദമി പ്രവർത്തിച്ച് വരുന്നുണ്ട് അതിലുള്ള കുട്ടികൾ ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് പ്രായമുള്ള ആളുകൾ വരെ അവിടെ പാട്ട് ഗാനം വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് വരാറുണ്ട് അതിൽ ഒരുപാട് കുട്ടികളുടെ പരിപാടികളും എല്ലാതും അമ്പലത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിത്തന്നെ നടത്താറുള്ളത്